ഇപ്പം വിവോ ഫോണെക്കുറിച്ചുള്ള ഒരു നെഗറ്റീവ് എക്സ്പിരീയന്സ് പറയാനാണെൽ തന്നെ ഇതിന്റെ ഹീറ്റിങ് ആണ് പറയാനുള്ളത് കാരണം കുറച്ച് വിഡീയോസ് കാണുമ്പത്തേക്കും ഫോണ് നല്ല ഹീറ്റ് ആകുന്നതുപോലെ തോന്നും പിന്നെ ചാര്ജിംഗില് വയ്ക്കുമ്പോളും ഫോൺ ചിലപ്പോൾ തനിയെ ഹീറ്റിങ് ആകും അതൊക്കെയാണ് ഒരു ബാഡ് എക്സ്പിരീയന്സായിട്ട് വരുന്നത് പിന്നെ ഇടയ്ക്ക് ചാര്ജൊക്കെ തനിയെ ഇറങ്ങി പോകും കാരണം നമ്മള് കുറച്ചുനേരം കളിക്കുന്നതിന് ചാര്ജ് വേഗം തീരുന്നതുപോലെ തീരുന്നുണ്ടാവും പിന്നെ പിന്നെ